ഹലോ ഗുഡ് മോർണിംഗ് ഇത് വിള ഇൻഷുറൻസ് കോർപ്പാണോ എൻ്റെ പേര് ഡേവിഡ് ഞാനൊരു കർഷകനായിരുന്നു അപ്പം ഞാനൊരു വിള ഇൻഷുറൻസിൻ്റെ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു അപ്പം അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചിരുന്നത് ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഡോക്യുമെൻസോ വല്ലതോ ആവശ്യമുണ്ടോ ആ ഡോക്യുമെൻസ് ആവശ്യമുള്ള ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനായിയിട്ട് അപ്ലോഡ് ചെയ്യാമായിരുന്നു അതന്വേഷിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ